ഹലോ നീതി ടൈലറിംഗ് ഷോപ്പ് അല്ലേ ആ ഞാൻ പന്നിപ്പാറയിൽ നിന്ന് വിളിക്കുവാണേ ഞാൻ എനിക്കൊരു ലഹങ്ക തയ്ക്കണമായിരുന്നേ ഹരിപ്രിയ എനിക്ക് ഈ മാസം ഇരുപത്തിയെട്ടാം തീയതിയിലേക്ക് ഒരു രണ്ട് മൂന്ന് ചുരിദാർ കൂടെ വേണമായിരുന്നേ ആ ആ ലെഹങ്കയുടെ വർക്ക് കുറച്ച് പിടിപ്പിക്കണമായിരുന്നേ ബ്ലൗസിലേ ആ ആ ആ അതൊന്ന് വാട്സാപ്പ് ചെയ്തേക്കണേ ആ ആ ആ നിങ്ങളുടെ ഷോപ്പിൽ ചുരിദാർ മെറ്റീരിയൽ ഉണ്ടാവുമോ ആ ആ ഞാനൊരു മൂന്ന് മെറ്റീരിയൽ എൻറെ കയ്യിൽ ഉണ്ട് രണ്ടെണ്ണം കൂടെ രണ്ട് പേർക്ക് കൂടെ വേണമായിരുന്നേ ആ എടുത്തായിരുന്നു എടുത്തായിരുന്നു ആ ലെഹങ്കയുടെ സ്കർട്ടിൽ വലിയ വർക്ക് വേണ്ട ടോപ്പ് ഇച്ചിരി ഹെവി ആയിട്ട് ഇരുന്നോട്ടെ നെക്ക് ബോട്ട് നെക്ക് മതി അതിൽ ബീഡ് വർക്ക് ചെയ്തോ ഉം പിന്നെ ഫുൾ സ്ലീവ് വേണം ലൈനിങ്ങ് വേണ്ട കയ്ക്ക് ഞാൻ ലെഹങ്കയ്ക്ക് ഉള്ള മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ചുരിദാർ കൂടെ വേണം അതിനുള്ള മെറ്റീരിയൽ ഞാൻ അവിടെ വന്നിട്ട് നോക്കിക്കോളാം അവിടുത്തെ എനിക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ അതുതന്നെ എടുത്തോളാം ആ ആ പിന്നെ പുറകിൽ ടോപ്പിന് സിബ്ബ് വയ്ക്കണം ആ ക്രോപ്പ് ടോപ്പ് മതി എന്തോ ക്രോപ്പ് ടോപ്പിന് വേണ്ട ആ അത് വേണ്ട പിന്നെ ഒരു ഷോൾ ഉണ്ട് ഷോളിന് ഞാനൊരു സിംപിൾ നെക്കിൻ്റെ ഒരു തുണി ഇങ്ങനെ മുറിച്ച് വാങ്ങിക്കുവാണ് അതിനിച്ചിരി വർക്ക് ചെയ്ത് ഇച്ചിരി അടിപൊളി ആക്കിത്തരണം ഷോളെ ആ ആ പിന്നെ അല്ല വേറെ രണ്ട് പേർക്കാണ് പക്ഷേ അതെന്റെ അളവ് തന്നെയാണ്

ആ ഓക്കേ ഓക്കേ കട വൈകുന്നേരം എത്ര മണി വരെ കാണും ഏഴര ആ ഞാൻ ഇന്ന് ഇന്ന് വരാമെന്നോർത്തായിരുന്നു ആ ആ ആ ആ അപ്പോൾ ചേച്ചി മാത്രമേ തയ്ക്കാനുള്ളൊ വേറെ ചേച്ചിമാരുണ്ടോ ആ അപ്പോൾ ഇരുപത്തിയെട്ടാം തീയതിയിലേക്ക് തരാമല്ലോ ആ ഈ ലെഹങ്ക സ്റ്റിച്ച് ചെയ്യുന്നതിന് എത്രയാവും ലെഹങ്ക സ്റ്റിച്ച് ചെയ്യുന്നതിന് എത്രയാവും ഓക്കേ ആ ശരി ആ എങ്കിൽ ഞാനൊരു നാല് മണിയാവുമ്പോൾ വന്നേക്കാമേ ആ ഓക്കേ